ഹലോ ഹലോ ആ അതേ ആ മഴ നനയുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ അവിടെ ഭയങ്കര റാഷസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ റെഡ് കളർ ഒക്കെ ഉണ്ടോ ആ ആ ആ അപ്പോൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആ എന്തായാലും ടി ടി അടിക്കേണ്ടിവരും അങ്ങനെ എട്ടുകാലി കടിച്ചിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെ എന്തായാലും പിന്നെ ഒന്ന് ക്ലിനിക്കിലേക്ക് വരേണ്ടിവരും ആ പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണ് കഴിക്കുന്നത്

നോൺവെജ് കഴിക്കുന്നില്ലേ ആ അപ്പോൾ കുറെ പച്ചക്കറി ഒക്കെ ഉൾപ്പെടുത്താൻ നോക്കണം ഫ്രൂട്ട്സും ആ ജൂസ് ആ ജൂസും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ നോക്കണം

ആ പെയ്ന് ഉണ്ടായിരുന്നോ അവിടെ അവിടെ പെയ്ന് ഉണ്ടായിരുന്നോ എന്ന് ആ ഓക്കെ ആ ഓക്കേ ആ അപ്പോൾ എന്തായാലും ക്ലിനിക്കിലേക്ക് വരേണ്ടിവരും

ആ ഇപ്പം നൂറ് രൂപയാണ് ഫീസ് വരുന്നത് ടോക്കൺ ഇല്ല വരുന്നവരെ അനുസരിച്ച് കയറൽ ആണ് പരിപാടി അവിടെ നിന്നുതന്നെ തരും ടോക്കൺ ആ മാനന്ദവാടി ഇല്ലേ ഗവൺമെൻ് ആശുപത്രിയിന് താഴെ ആണ് ആ അവിടെത്തന്നെ എയ് ഇല്ല ഇല്ല ഇല്ല കുഴപ്പമില്ല ആ അവിടെ നിന്ന് തന്നെ തരും എയ് ഇല്ല മരുന്ന് ഫ്രീ ആണ്

ആ ഓക്കെ ഓക്കെ ഓക്കെ ശരി എന്നാൽ